കേരളത്തെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് യൂണിയനിസം കാർഷികമേഖലയെ വല്ലാതെ ബാധിച്ചിരിക്കിന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ക്രമാതീതമായിട്ടുള്ള ജോലിക്കൂലി വർധന അതുകൊണ്ട് ഇത് കൃഷി ആദായകരമല്ലാത്ത രീതിയിലാക്കി ആയിരിക്കിന്നൊരു കാലാവസ്ഥയിലാണ് കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ഞങ്ങളുടെ പ്രദേശം കൊല്ലം ജില്ലയിലെ ഞങ്ങളുടെ പ്രദേശത്ത് ട്രേഡിയനിസം കൊണ്ട് വലിയ വിഷയൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും മറ്റുള്ള അത് പിന്നേ ഒരു നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലാളികൾ നമ്മുടെ വീട്ടിലോ നമുക്കുവേണ്ടി ജോലിചെയ്യുന്നുണ്ട് എന്ന് ഇപ്പോഴാണതിൻ്റെയൊക്കെ ചാർജൂകൂടി ചാർജ് കൂടി അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കിട്ടുന്നില്ല പക്ഷേ പൊതുവെ ഈ ചാർജ് കൂടിയപ്പോൾത്തന്നെ അവർ കൃഷി ആളുകൾ പിന്നെ കൃഷിയൊക്കെ ഇപ്പോൾ പൊതുവേ ഉപേക്ഷിച്ചു ഉടമസ്ഥർ പിന്നെ കൂടുതലുള്ള കൃഷിയുപേക്ഷിച്ചു കാര്യം അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് നമ്മളത് ആയെത്ര ലേബറ് ലേബർ കോസ്റ്റിന് കൊടുത്താലും ശരി ആ കൊടുത്താൽ കിട്ടുന്നതിൻ്റെ വിളവ് വിഭവങ്ങളുടെ വില അതുമായിട്ട് താരതമ്യപ്പെടുമ്പോൾ കുറവാണ് പൊതുവേ ട്രേഡ് യുണിയനിസം പിന്നെ ഇതിനെയൊക്ക ബാധിച്ചിട്ടുണ്ടെന്നതിൻ്റെതാ അവതരിക്കുന്നത് പക്ഷെ ഈ വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ ഒന്നും എനിക്ക് എന്നെ ബാധിച്ചിട്ടില്ല പൊതുവെ നോക്കുമ്പോൾ ഇതൊരു കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെല്ലാം പിന്നെ ട്രേഡ് യുണിയനിസവും ട്രേഡ് യൂണിയൻ മിൽട്ടൻസി പിന്നെ ഇത് ഇതിൻ്റെ സമീപത്ത് തന്നെ ബാധിച്ചിരിക്കുന്നത് പണ്ടുകാലത്ത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കെഴുപത് വയസ്സുണ്ട് അറുപത്തൊമ്പത് വയസ്സുണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കൃഷി ചെയ്തൊരു സാധനം കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അതൊന്ന് ഇറക്കിവെക്കുന്നത് ഇതുപോലും കൃഷിക്കാരൻ്റെ അതിനു അവകാശം കൊടുത്തിരുന്നില്ല നോക്കിക്കൊണ്ടിരിക്കുന്നവർ അതിൻ്റെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുമായിരുന്നു ആ ഒരു ഇപ്പോഴത്തേന് നമുക്ക് സമ്പ്രദായത്തിനോട് വളരെ പുച്ഛവും വിഷമവും തോന്നുന്നു തോന്നുന്നുവെന്നതാണ് ഈ കാലഘട്ടത്തിൽ അത് കൃഷിയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അതിന് ആ രീതി വരുന്നില്ല പക്ഷേ അതിനവരുടെ മനോഭാവം എന്നെല്ലാം ഇതിനെ സഹായിക്കുന്ന കൃഷിക്കാരെയും കാർഷികവൃത്തിയും സഹായിക്കുന്നൊരു മനോഭാവം ട്രേഡ് യൂണിയനിൽ ചേർന്നതും വരണം ആ തീർച്ചയായിട്ടും അവർക്ക് ഒരു തൊഴിലാളികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടണം അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളും ആധുനികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടണം പക്ഷെ അതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിൽ ആയിരിക്കണം അല്ലാതെ പിന്നെ ഇതിൻ്റെ കൃഷി ഭൂവുടമയോ അല്ലെങ്കിൽ കൃഷിക്കാരനെയോ മൊത്തം നശിപ്പിച്ചിട്ട് പിന്നെ കാർഷികത്തൊഴിലാളികൾ മാത്രം ജീവിച്ചാൽ മതിയെന്നുള്ള രീതിയുള്ള ഉള്ള സംവിധാനങ്ങളും ആശയങ്ങളൊക്കെ ഇത് ആശയങ്ങളോ ആ ഈ ആശയംകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ രീതികളൊക്കെ മാറി മാറിവരണം ഇത് തൊഴിലാക്കി നിർത്തിയേക്കുന്ന അനേകം ആളുകളുണ്ട് അവരുടെയൊക്കെ രീതികൾ മാറിയെങ്കിൽ നമ്മുടെ നാടും നന്നാവും പിന്നെ ഈ തൊഴിലിനോടും ഈ കാർഷികവൃത്തിയോടുമുള്ള നമ്മുടെ നമ്മുടെ സമീപനം തീർച്ചയായും ധാരാളമായിട്ട് മാറേണ്ടിയിരിക്കുന്നു അത് നല്ലൊരു മേന്മയേറിയ ഒരു ജോലിയാണ് കാർഷികവൃത്തി എന്നുള്ളൊരിത് അത് പുതിയതലമുറയ്ക്ക് കൊടുക്കണം ട്രേഡ് യുണിയനിസം ഈ കൃഷി സമ്പ്രദായത്തിനെ നശിപ്പിക്കരുത് ഉദാഹരണമായിട്ട് എടുത്തുഴിഞ്ഞാൽ കുട്ടനാടൻ പ്രദേശങ്ങളിൽ അന്ന് ധാരാളമായിട്ട് കൃഷി നടന്ന കയർ കൃഷി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇതെല്ലാം ഈ ഭൂമിയെല്ലാം ഭൂപരിഷ്കരണം അനുസരിച്ച് പിടിച്ചെടുത്തു ഗവൺമെൻറ്റ് പിടിച്ചെടുത്ത് വിതരണം ചെയ്തു അതോടുകൂടി മുരുകൻ ഗ്രൂപ്പ് അത് മറ്റേ മഹാരാജാവ് രാജഭരണത്തിൻ്റെ സമയത്ത് ഇത് ഈ ലോകമഹായുദ്ധത്തിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണെന്ന് തോന്നുന്നു പിന്നെ കൃഷി ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ പലരെയും ഏൽപ്പിച്ചു എന്നിട്ടത് നല്ല അതാണത് കായൽ കുത്തി കായൽ കായൽ കുത്തി പിന്നെ കൃഷിയോഗ്യമാക്കി എന്നിട്ടത് നല്ലരീതിയിൽ നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഒരു സർക്കാരിൻ്റെ സമയത്ത് ഇ എം എസ് സർക്കാരിൻ്റെ സമയത്ത് ആ പിന്നെ ഇതിൻ്റെ ഭൂനിയമം കൊണ്ടുവന്നിതെല്ലാം എല്ലാവരെ എന്നും പിടിച്ചെടുത്ത് അതെല്ലാം ഇപ്പോൾ വിജനമായിട്ട് കിടക്കുകയാണ് കൃഷിയൊന്നും ഇല്ലാത്തരീതി കിടക്കുകയാണ് ഇപ്പോൾ എത്ര പ്രാവശ്യം അത് ശ്രമിച്ചിട്ടുപോലും ശ്രമിച്ചിട്ടുപോലും അത് നല്ലരീതിയിൽ കൃഷി യോഗ്യമാകുന്ന രീതിയിലാക്കിയിട്ടില്ല അത് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽത്തന്നെ നശിപ്പിക്കുവാനായിട്ട് രാഷ്ട്രീയ രാഷ്ട്രീയ ശക്തികൾക്ക് വളരെ താൽപ്പര്യമാണ് പക്ഷെ അത് നശിച്ചുകഴിഞ്ഞാൽ പൊൻമുട്ടയിടുന്ന താറാവും അതിൻ്റെ കഥ പറഞ്ഞപോലെയേ ആവുകയുള്ളൂ പിന്നെ അതിനകത്തൊന്നും കിട്ടില്ല എത്ര ശ്രമിച്ചിട്ടും അവിടെയൊന്നും വീണ്ടും കൃഷിയിടാൻ പറ്റുന്നില്ല നേരത്തേ നല്ലരീതിയിൽ മാനേജ് ചെയ്തിരുന്ന കൃഷി സമ്പ്രദായങ്ങളെല്ലാം നശിച്ചുപോയി പിന്നെകാർഷിക വൃത്തിയോടുള്ള ആളുകളുടെ സമീപനം എല്ലാം മാറിയിരിക്കുന്നു അതെല്ലാം ഈ രാഷ്ട്രീയക്കാരുടെ പിന്നെ വീക്ഷണം ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് നടന്നിരിക്കുന്നത് അതെല്ലാം മാറ്റിവരണം കേരളത്തിനെ സംബന്ധിച്ച് വലിയൊരു വിപത്തായിരുന്നു കാർഷികസമ്പ്രദായം നശിപ്പിച്ച് കളഞ്ഞത് അതാണ് എൻ്റെ അഭിപ്രായം